ഞാൻ തീർച്ചയായും സമൂഹ മാധ്യമത്തിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യാറുണ്ട് കാരണം പോസ്റ്റ് ചെയ്യുന്നത് കുറേ ആൾക്കാർ കാണാനും സ്വന്തം മനഃസമാധാനത്തിനും വേണ്ടിയാണ് നമ്മളെങ്ങനെ നടക്കുന്നു നമ്മുടെ വസ്ത്രധാരണമെന്താണ് നമ്മളെ ആൾക്കാരെങ്ങനെ കാണണം എന്നുള്ളതൊക്കെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുമ്പോൾ മനസ്സിലാവും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നിവ വാട്സപ്പെന്ന മാധ്യമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റ് അപ്ലോഡ് ചെയ്യാറുള്ളത് കൂട്ടുകാർ കൂട്ടുകാർ കൂട്ടുകാരികൾ എല്ലാവർക്കും വേണ്ടി കാണാൻ നമ്മളെങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ സമൂഹത്തിൽ പോവുമ്പോൾ ആൾക്കാർ നമ്മളെ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് വസ്ത്രത്തിലൂടെയാണ് നമ്മളെ തിരിച്ചറിയുന്നത് വസ്ത്രധാരണത്തിൽ വസ്ത്രധാരണണത്തിലൂടെയാണ് മനുഷ്യനെ ഒരു മനുഷ്യനെ തിരിച്ചറിയുന്നത് അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ് സമൂഹമാധ്യമത്തിൽ പോസ്റ്റിടുന്നത്